ഹലോ ഇത് വർഷ ട്രാവൽ ഏജൻസിയല്ലെ അതെ ഞാൻ ഒരു യാത്രക്ക് വേണ്ടിയിട്ടു നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ട്രാൻസ്പ്പോട്ട് ഏജൻസീന്നാണ് ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്തത് പക്ഷെ നിങ്ങൾ വണ്ടി വളരെയധികം മോശമായ അവസ്ഥയായിരുന്നു അതു നിങ്ങളുടെ വാഹനത്തിന്റവസ്ഥ ഉദാഹരണത്തിനു കീറിപ്പോയ സീറ്റ് കീറിപ്പോയി പിന്നേ നമുക്ക് ഇരിക്കാൻ നല്ല കംഫോട്ടല്ലായിരുന്നു പിന്നെ റോഡിൽ വെച്ചു തന്നെ കാറിന്റെ ടയർ പഞ്ചറായി അപ്പം അത്രയും മണിക്കൂർ നമുക്ക് വേയ്സ്റ്റ് ആയിപ്പോയി പിന്നേ നമുക്കു തന്നെ നിങ്ങൾ നല്ല ഫീഡ് ബാക്കുള്ളതു കൊണ്ടാണ് ഞാൻ നമ്മൾ നിങ്ങളുടെ വർഷേ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു നമ്മൾ ബുക്ക് ചെയ്തു പക്ഷെ നിങ്ങളുടെ ഈ സർവീസ് വളരെയധികം മോശമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു പാസ്സഞ്ചേഴ്സിന്റെ ഒരു മനോഭാവം നോക്കണ്ടെ നിങ്ങൾ ഹോണാണെങ്കിൽ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല രണ്ടു മൂന്നു സ്ഥലത്തു കൊണ്ടുപോയി ഡ്രൈവർ തന്നെ അശ്രദ്ധ മൂലം ഓരോ പ്രശ്നങ്ങളുണ്ടാക്കയായിരുന്നു ഇപ്പം ഈ ഡ്രൈവറിന്റെ പ്രശ്നത്തിൽത്തന്നെ വേറൊരാൾക്കപകടം പറ്റി അവിടെയൊന്നു തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായിരുന്നില്ല അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്റെ കുട്ടിയ്ക്കാണെങ്കിൽ ഒരു എക്സാമിനു പോകാൻ വേണ്ടിയിട്ടാണ് ഇതു ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ ആ എക്സാമെഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ കാണിക്കുന്നത് പക്ഷെ എന്താണെന്നു വെച്ചാൽ നിങ്ങൾ വളരെയധികം മോശമായ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ സർവീസ് എല്ലാം പെർഫോമൻസുമെല്ലാം ഡ്രൈവർ വന്നിട്ടു നല്ല ഒരു മെച്യുരിറ്റി പോലും തോന്നിക്കാത്ത രീതിയിലുള്ളൊരു ഡ്രൈവറിനെ ആണ് നിങ്ങൾ പറഞ്ഞുവിട്ടിരുന്നത് അവർക്കു പോലും ആ റൂട്ടേതെന്നു പോലും അറിയില്ലായിരുന്നു ഞാൻ നിങ്ങളോടു വിളിച്ചെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടുള്ള കാര്യം കൂടെയാണ് പക്ഷെ എന്തെന്നുവെച്ചാൽ നിങ്ങൾക്കു പങ്ച്വാലിറ്റി ഇല്ലായിരുന്നു പങ്ച്വാലിറ്റി ഇല്ലെന്നു പറഞ്ഞ സമയത്തിന് എക്സാമിനു പോകാൻ പറ്റാതായി കുട്ടിക്കു പരീക്ഷ എഴുതാൻ പറ്റിയില്ലായിരുന്നു നിങ്ങളുടെ ഈ അശ്രദ്ധ മൂലം മാത്രമാണ് ഇതു സംഭവിച്ചത് സർവീസെന്നു പറഞ്ഞാൽ നിങ്ങൾ മോശമായിട്ടുള്ള സർവീസാണ് പക്ഷെ ഇപ്പം റോഡ് പഞ്ചറായിക്കിടന്നതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ വേറൊരു കാർ അറേയ്ഞ്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് സമയത്തിനു പോയി കുട്ടിയുടെ എക്സാമെഴുതാമായിരുന്നു എന്റെ കുട്ടിയുടെ ഭാവിയാണ് നിങ്ങൾ കാരണം ഇല്ലാതാകുന്നത് ഇതു നിങ്ങൾ എന്തെന്നു വെച്ചാൽ നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളു ഇനി ആരോടും ഇങ്ങനെ കാണിക്കാത്ത രീതിയിൽ അതെ കാറ് വന്നിട്ട് പഞ്ചറായി പഞ്ചറായപ്പം റോഡ് നിന്നപ്പോഴേക്കും അത്രയും സമയം പോയി നിങ്ങളല്ലങ്ങി വേറെ ഒരാളെ വിളിച്ച് എന്തെങ്കിലുമൊരു സിറ്റുവേഷൻ ക്രീയേറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളൊന്നു പറയണമായിരുന്നു ആക്സിഡൻറ്റ് നടന്നപ്പം പോലും തിരിച്ചൊന്നു നിങ്ങൾ എന്താണെന്നുപോലും അവരോടു തിരക്കാതെയാണ് ആ ഡ്രൈവർ വണ്ടി എടുത്തു കൊണ്ടു പോയി അതൊക്കെ മോശമായ രീതിയിലാണ് ഇപ്പം നമുക്കു തന്നെ അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചു കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതു കൊണ്ട് അവർ ഇപ്പം നമ്മൾ പെരുമാറിയത് നല്ല വർഷാ ഏജൻസിയെന്നല്ല ഹൈ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ ട്രാൻസ്പ്പോട്ടിൽ അവർ വളരെ മോശമായ രീതിയിലാണ് ഞാൻ എവിടെയോ ഒരു ഫീഡ് ബാക്ക് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും വർഷ ട്രാൻസ്പ്പോട്ട് എന്നു പറഞ്ഞാൽ വളരെ മോശമായ ട്രാൻസ്പ്പോട്ട് ഫെസിലിറ്റീസാണ് നിങ്ങളേൽ ചെയ്യുന്നത് അതുകൊണ്ട്